ഈ കാലഘട്ടത്തിൽ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് സ്ക്രീനിൻ്റെ മുന്നിലിരുന്ന് കൊണ്ട് കുട്ടികള് കായിക വിനോദങ്ങള്ല് ഏർപ്പെടാതെ സ്ക്രീനിൻ്റെ മുന്നിൽ മാത്രം ചിലവഴിക്കുന്നത് അതുകൊണ്ട് കുട്ടികളില് ഏറ്റവും കൂടുതല് രോഗങ്ങള് ശാരീരികമായ രോഗങ്ങള് അതുപോലെ ജീവിത ശൈലി രോഗങ്ങള് ഒക്കെ പിടിപ്പെടാൻ ഇടയായിട്ടുണ്ട് ഇപ്പം കുട്ടികളില് കൂടുതലായിട്ട് കണ്ട് വരുന്നത് ജീവിത ശൈലി രോഗങ്ങള് കുട്ടികളിൽ കണ്ട് വരുന്നുണ്ട് അതിൻ്റെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഡോക്ടർമാര് തന്നെ പറഞ്ഞിട്ടുള്ളത് കായിക വിനോദങ്ങളിലേർപ്പെടാത്തത് കൊണ്ടാണ് വ്യായാമങ്ങളോ മറ്റോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നതാണ് അത് നമ്മുടെ ശാസ്ത്രീയ പഠനങ്ങളും ഒക്കെ അത് തെളിയിച്ചിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ കുട്ടികളെല്ലാം ഏറ്റവും കൂടുതല് കായിക വിനോദങ്ങളിലാണ് ഏർപ്പെട്ടുക്കൊണ്ടിരുന്നത് ഇന്ന് അത് മൊബൈലിലേക്ക് ഒതുങ്ങി മൊബൈൽ ഗെയിംമ്കള് അതുപോലെ തന്നെ ടി വി യുടെ മുൻപില് അങ്ങനെ മാധ്യമങ്ങളുടെ മുൻപിൽ മാത്രം ഇരുന്നു കൊണ്ട് അവർ മെൻ മാനസികമായ ഉല്ലാസം മാത്രം കണ്ടെത്തുകയാണ് അത് ശാരീരികമായ അല്ലെങ്കിൽ കായിക ക്ഷമത നേടുവാനവർക്ക് ഇടയാകുന്നില്ല ഇതുകൊണ്ട് കുട്ടികളില് മറ്റുള്ളവരോടുള്ള സംസാര രീതികള് അതുപോലെ തന്നെ ഇടപഴകാനുള്ള അവരുടെ അറിവുകള് അങ്ങനെ ഒന്നും ഇല്ലാതെ ഒരു വീടിനകത്ത് അല്ലാ എന്നുണ്ടെങ്കിലൊരു ടെലിവിഷന് മുൻപില് അല്ലാ എന്നുണ്ടെങ്കിലൊരു മൊബൈലിനു മുൻപിൽ അവര് അടിമപ്പെട്ട് പോവുകയാണ് അതുകൊണ്ടവരുടെ മാനസികമായും ശാരീരികമായും അവർക്ക് വളരുവാൻ സാധിക്കുന്നില്ല നിരവധി പ്രശ്നങ്ങൾ അതുമൂലം ഉണ്ടാകാറുണ്ട് ചില കുട്ടികള് അതുമൂലം ആത്മഹത്യയിലേക്ക് വരെ നയിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മളുടെ കുട്ടികളെ സ്കൂൾ തലത്തിൽ തന്നെ അവരുടെ കായിക ക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി കായിക വിനോദങ്ങളില് അവരെ പ്രോത്സാഹിപ്പിക്കണം അതുപോലെ അവരുടെ വീ വീടുകളിൽ തന്നെ അത് അതിന് ഉള്ള അവരെ പ്രചോദനം ഉൾക്കൊണ്ട് കൊണ്ടവര് മുതിർന്നവര് അവരെ അതിനേക്ക് നയിക്കുവാൻ ഇടയാകണം അവരുടെ ജീവിത രീതികളെ അവരെ പട പറഞ്ഞ് പഠിപ്പിക്കുന്നതിനും ഒക്കെ സാധിക്കണം ഇത് കുട്ടികളെ കളിക്കാനായി എങ്ങനെ പ്രചോദിപ്പിക്കാമെന്നുള്ളതിന് നമുക്ക് അവരെ അതിലേക്ക് നയിക്കാന് അതിന് വേണ്ട സാഹചര്യങ്ങളൊരുക്കി കൊടുക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും നമ്മള് പുസ്തകത്തിൻ്റെ മുൻപിലോ അല്ലാന്നുണ്ടെങ്കിൽ അവരെ പഠിക്കുന്നതിന് നിർബന്ധിച്ച് കൊണ്ടിരിക്കാതെ അവരെ മറ്റ് കൂട്ടുകാരുമൊക്കെ ആയിട്ട് നല്ല കൂട്ടുകാരുമായിട്ട് കായിക വിനോദങ്ങളിലേർപ്പെടാൻ അവരെ ഉത്സാഹിപ്പിക്കണം അതുമൂലം കുറച്ച് സമയം നമുക്ക് അവർക്ക് വേണ്ടി മാറ്റി നമ്മുടെ ജീവിതത്തിനും മാറ്റി വെയ്ക്കുവാണെങ്കിൽ നമുക്കും വളരെ നല്ലതാണ് ഇങ്ങനെ ഇക്കാ കായികമായവര് വളരുകയാണെങ്കില് അവരുടെ മനസികമായവര് നല്ല നിലയിലെത്തുവാൻ ഇടയായി തീരും അത് മറ്റുള്ളവരോടുള്ള അനുകമ്പ അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനവരോട് സംസാരിപ്പാൻ അവരുടെ കാര്യങ്ങളിൽ ഇടപെടാനൊക്കെ ഒരു അത് അവരുടെ ജീവിതത്തിലും അതൊരു വളരെ പ്രയോജനമാകും ഒരു മറ്റൊരു സ്ഥലത്ത് പോയി നിന്നാൽ തന്നെ അവിടെയുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകാനൊക്കെ ഈ കായിക വിനോദങ്ങള് ലൂടെ ഏർപ്പെടുമ്പോൾ അത് പരിചയം പുതുക്കുന്നതിനും ഒക്കെ ഇടയായിത്തീരും അത് സ്കൂൾ തലത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ട് വരേണ്ടതാണ് അതിന് നമ്മുടെ സർക്കാരും ഒക്കെ ഇത് ഇടപെട്ട് ഈ കായിക വിനോദങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഉള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കേണ്ടതാണ് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതാണ് ഇങ്ങനെ ഒക്കെ ചെയ്താൽ നമ്മുടെ കുട്ടികള് ഇതിൽ ഒരു നല്ല നിലവാരത്തിലേക്ക് എത്തുവാൻ സാധിക്കും